ഇപ്പം വിദ്യാർഥികൾ തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് പോകാൻ എവിടെ ഒക്കെയാണ് താൽപര്യപ്പെടുന്നത് എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചായിരിക്കുമല്ലോ ചിലർക്ക് ഹോസ്റ്റലിൽ ഒക്കെ പോയി ചിൽ ആയിട്ട് പഠിച്ച് ഇതാകാൻ ആയിരിക്കും ചിലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം ആയിട്ട് ആയിട്ടായിരിക്കും പോവുന്നത് അങ്ങനെ ഉള്ളതൊക്കെ ചിലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അച്ഛൻറ്റെയും അമ്മേൻറ്റെയും കൂടെ നിന്നിട്ട് അതായത് അവർ ജീവിക്കുന്ന ആ ഒരു പരിസ്ഥിതി അതായത് ഒരു സ്ഥലത്ത് തന്നെ പഠിക്കാൻ ഒക്കെ ആയിരിക്കും താല്പര്യപ്പെടുന്നത് ചിലവർ അതേപോലെ ഡിഗ്രി പഠിക്കും ചിലവർ എഞ്ചിനീയറിംഗ് പഠിക്കും ചിലവർ എം ബി ബി എസിന് പോകും പിന്നെ എം ബി ബി എസിന് ഒക്കെ പോകണെമെങ്കിൽ അത്യാവശ്യം ക്യാഷ് വേണം അതേപോലെ അത്യാവശ്യം മൈൻഡ് അതായത് നമുക്ക് പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം നമ്മൾ പോവണം ചിലവർ സി എ പഠിക്കാൻ പോകും അങ്ങനെ ഓരോരുത്തർ ഓരോ മൈൻഡിന് അനുസരിച്ച് അതായത് അവരുടെ ഓരോ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചാണ് ഓരോരുത്തര് പോവുക അങ്ങനെ പലരും പല മേഖലകളാണ് തിരഞ്ഞെടുക്കുക പിന്നെ അതൊക്കെ എന്ന് വെച്ചാൽ ചിലവർ വീട്ടുകാർ പറയുന്നതിന് അനുസരിച്ച് ഓരോ മേഖലകൾ തിരഞ്ഞെടുക്കും ചിലവർ വീട്ടുകാർ പറയുന്ന വീട്ടുകാർ പറയുന്നത് മാത്രമല്ലാണ്ട് അത് അവരുടെ മൈൻഡ്സെറ്റിൽ ആദ്യം ഇതാക്കി വെച്ചിട്ടുണ്ടാകും പ്ലസ് ടു ഇത് പഠിക്കണം അത് കഴിഞ്ഞ് ഇത് പഠിക്കണം ഒരു ജോലി നേടണം ആ ഒരു മൈൻഡിൽ ഉള്ളവരും ഉണ്ടാവും